ഹെലോ ഗൂഡാഫ്റ്റർനൂൺ ഇത് ക്യാബ് ഏജൻസിയല്ലേ ആ ഞാനൊരു ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിലൊരു ഇന്നോവ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റ്റൂ തൌസൻഡ് റുപ്പീസ് നമ്മള് നേരത്തെ എമൌണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അപ്പം ഞങ്ങള് ഫാമിലിയൊക്കെയായിട്ട് ഇപ്പം പോകാൻ തിരുമാനിച്ചതായിരുന്നു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകള് കാരണം അത് മാറ്റിവെച്ചേ അപ്പോൾ നമ്മൾ അൽറെഡി ഈ ഡെപ്പോസിറ്റ് ചെയ്ത റ്റൂ തൌസന്റെ എമൌ ഞാൻ ഗൂഗിൾപേ ചെയ് ആയിട്ടാണ് ട്രാൻസാക്ഷൻ ചെയ്തത് അപ്പോൾ നമുക്കത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവെയിലബിളാണോ ആ അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടന്ന് ആ ഫണ്ട് ഒന്ന് റീഫണ്ട് ചെയ്യാൻ പറ്റോ ആ ഞാൻ നിങ്ങൾക്ക് വാട്സാപ് ചെയ്യാം എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആ നമ്പറിലേക്കൊന്നു റീഫണ്ട് ചെയ്താൽ മതിയെ എത്ര സമ് ആ റീഫണ്ട് എടുക്കാൻ താമസ നിങ്ങൾ കുറച്ച് പൈസ പിടിച്ചിട്ടേ തരത്തുള്ളോ ആ എന്നാല് ഒര് ജസ്റ്റത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് തന്നാൽ മതി ആ ഇത്രേയും ആ വേഗം തന്നാൽ അത്രയും നല്ലത് ഓക്കെ താങ്ക്യു